ഹലോ ഇത് ഊബർ ട്രാൻസ്പോർട്ട് ഏജൻസി അല്ലേ ഞാൻ ഹരിറാം നിങ്ങളുടെ ഒരു സ്ഥിരമായ കസ്റ്റമർ ആണ് ഞാനിന്ന് രാവിലെ കോഴിക്കോട് നിന്നും താമരശ്ശേരിയിലേക്ക് യാത്ര ചെയ്ത നിങ്ങളുടെ ഒരു ഊബർ കാറിൻറെ സീറ്റ് വല്ലാതെ കീറിയിരുന്നു അതെന്നെ വളരെ അസ്വസ്ഥനാക്കി ഞാനേകദേശം ഇരുനൂറ്റമ്പത് രൂപകൊടുത്താണ് ആ കാറിൽ യാത്ര ചെയ്തത് അപ്പോൾ നിങ്ങളുടെ സർവീസ് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി പറ്റുമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ് ഓക്കേ താങ്ക്യൂ